ആദ്യമൊക്കെ മലയാളത്തില് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു വാക്കുകൾ അത്ര വ്യക്തമായിരുന്നില്ല പിന്നെ എഴുതുമ്പോളും അതിൻ്റെതായ തെറ്റ്കുറ്റങ്ങളും എല്ലാം കുനിപ്പുകളും മറ്റും ചന്ദ്രകല അങ്ങനെ കാര്യങ്ങളൊക്കെ തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു കാരണം മലയാളം ന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല നിറയെ അക്ഷരങ്ങളുള്ള ഒരു ഭാഷയാണ് സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ അങ്ങനെ ഒരുപാട് അക്ഷരങ്ങളുണ്ട് അപ്പം മലയാളം ആദ്യമായിട്ട് പഠിച്ചെടുക്കുകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തുടർച്ചയായി നമ്മള് പേപ്പർ വായിക്കുകയും പത്രം വായിക്കുകയും നോവലും പുസ്തകങ്ങളും മറ്റും വായിക്കുകയും ഇപ്പോൾ നമ്മളാരും എഴുതുന്ന രീതി കുറച്ചുംകൂടെ മെച്ചപ്പെടുത്തിയാൽ നമുക്ക് നന്നായിട്ട് മലയാളം വായിക്കാൻ സാധിക്കും അങ്ങനെ തുടക്കത്തില് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു